ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ വാർത്താമാധ്യമങ്ങൾ ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രധാന ആയുധമായിട്ട് മാറിയിട്ടുണ്ട് അതിൻ്റെ വേറൊരു പ്രസക്തി എന്നുവെച്ചാൽ നമ്മൾ കരുതുന്നത് ഈ സാമൂഹ്യ അതായത് സമൂഹത്തിൽ എന്ത് എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും അത് അതിനെ അതായത് സമൂഹത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്ത് സംഭവിച്ചാലും അതിനെ എടുത്ത് മറ്റ് ജനങ്ങളിലേക്ക് പകർ അറിയിക്കുന്നത് വാർത്താമാധ്യമങ്ങളുടെ പ്രധാന ഘടകമായി മാറി മാറിയ മാറി അത് അതൊരു നല്ല ഒരു സൂചനയാണ് ഏത് സമയം എപ്പോൾ എപ്പോൾ ഏത് സമയം എന്ത് സംഭവിച്ചാലും അത് മ ജനങ്ങളുടെ ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് അരികിൽ എത്തിക്കുക എത്തിക്കുന്നത് വാർത്താമാധ്യമങ്ങളാണ് രാഷ്ട്രീയത്തെ ആയാലും സമൂഹത്തായാലും മറ്റ് സാമ്പ നാടിൻ്റെ സാമ്പത്തിക വ്യവസ്ഥകളിലായാലും സാമ്പത്തിക സാമ്പത്തിക വ്യവസ്ഥ വളരെ താഴ്ന്ന നിലയിലായാലും രാഷ്ട്രീയത്തിൻ്റെ പിടിപ്പുകേടായാലും എല്ലാം വാർത്താമാധ്യമങ്ങൾ ജനങ്ങളെ എത്രയും പെട്ടെന്ന് സെക്കൻഡുകൾ സെക്കൻഡുകൾക്കുള്ളിൽ അറിയിക്കുന്നുണ്ട് വാർത്തമാധ്യമങ്ങൾ പല ചാനലുകളായും പല ന്യൂസ് പേപ്പറുകൾ വഴിയും ഇതേ നാട്ടിൽ നാട്ടിൽ നാട്ടിൽ പ്രവർ വാർത്താമാധ്യമങ്ങൾ ജനങ്ങളിലെ ജനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ടി വി ചാനലുകൾ വഴിയും ന്യൂസ് ന്യൂസ് പേപ്പറുകൾ വഴിയും അവർകൾ അവർ എത്തിക്കുന്നുണ്ട് അതായത് ഒരു സമൂഹത്തിൽ എന്ത് സംഭവിച്ചാലും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ രാഷ്ട്രീയ രാഷ്ട്രീയങ്ങൾക്കിടയിൽ നടക്കുന്ന യുദ്ധങ്ങളും നാട്ട് നാടും നാടും തമ്മിലുള്ള യുദ്ധങ്ങളും അതെല്ലാം സ് നിമിഷനേരം കൊണ്ട് ജനങ്ങൾലേക്ക് എത്തിക്ക്ന്നത് ഈ വാർത്താമാധ്യമങ്ങളാണ് നമ്മുടെ നാട്ടിലെ സാമ്പത്തിക സമ്പത് വ്യവസ്ഥ തകരുന്നതും ഉയർച്ചയ്ക്കും ഉയർച്ചയും അത് തകർച്ചയും ഉയർച്ചയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സാമ്പത്തി വാർത്താമാധ്യമങ്ങളാണ് അത് ന്യൂസ്പേപ്പർ ന്യൂസ്പേപ്പർ പല രീതികളിലും ദീപോ ദീപികയായാലും മലയാള മനോരമയായാലും മാതൃഭൂമിയായാലും അതുപോലെ ടി വി ചാനൽ ടി വി ചാനൽ പല ചാനലുകളും ഇതിനായി അവർക്ക് നോക്കിയിരിക്കുന്നുണ്ട് അപ്പം ഈ ഈ ചാനലുകൾ എല്ലാം നാ മുക്കിലും മൂലയിലും നാട്ടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും വാർത്താമാ വാർത്താമാധ്യമങ്ങൾ വ് അനീതികളെ അനീതികളെ വിളി മറ്റ് ജനങ്ങളറിയാൻ വേണ്ടി ജനങ്ങൾലേക്ക് അനീതി നടക്കുന്ന നടക്ക് നടക്കുന്നത് മറ്റ് ജനങ്ങളിലേക്ക് അടുത്ത സെക്കൻഡ് തന്നെ അറിയിക്കുന്നുണ്ട് ബ്